ഹലോ ആ നീ ഫ്രീ ആണോടീ എടീ എനിക്ക് ഈ കോഴിക്കോട് എരിയയിലേ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വീടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാരുന്നേ ഞാൻ ട്രഡീഷണൽ നാലുകെട്ടായിട്ടുള്ള വീടുകളാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര നൊസ്റ്റു ഫീൽ ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ട്രഡീഷണൽ വീടൊക്കേ വേണമല്ലോ ഭയങ്കര ആഗ്രഹമാണ് ട്രഡീഷണൽ വീട് മ്മ് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ നിനക്ക് എന്തായാലും കുഴപ്പമില്ല എനിക്കൊരു ട്രഡീഷണൽ വീട് നല്ല വീട് ഒത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഒക്കെ ഓക്കെ ആണെങ്കിൽ വാങ്ങാമെന്ന് കരുതി റെൻറ്റിനാണെങ്കിലും കുഴപ്പമില്ല ഒരു കുറച്ച് കാലം താമസിക്കാമല്ലോ എടീ കാണുമ്പോൾ ഉണ്ടല്ലോ ട്രഡീഷണൽ ലുക്ക് ആയിരിക്കണം നാലുകെട്ട് നടുക്ക് കുളം രണ്ട് നിലയൊക്കെയായിട്ട് മ് പക്ഷേ ഫുൾ ഉള്ളിൽ കയറി കഴിയുമ്പം നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതായിരിക്കണം ട്രഡീഷൻ കാണുമ്പം എല്ലാം ട്രഡീഷണൽ ലുക്ക് ആണെങ്കിലും മരം കൊണ്ട് മോഡൊക്കെയിട്ടിട്ട് പക്ഷേ ബാക്കി സൗകര്യങ്ങളൊക്കെ നല്ല ഓക്കെ ആയിരിക്കണം

റെൻറ്റിനാണെങ്കിൽ അവരെത്രയാണ് പറയുന്നത് ഓക്കേ മന്ത്ലി മ്മ് മ്മ് നീ ഒരു കാര്യം ചെയ്യ് നീ നോക്കിയിട്ട് ഒന്ന് പറയുമോ എനിക്ക് ഒരു റെൻറ്റിനായാലും കുഴപ്പമില്ല വിത്തിൻ വൺ മന്ത് അത്രയും മതി

ആണോ മ്

എന്നിട്ടെന്നെ ഒന്ന് വിളിക്കണേ ആയിക്കോട്ടേ

ആ ഫുൾ ഫർണ്ണീച്ചർടെ ഉള്ളത് മതി മ്മ് മ്മ് ആ സെറ്റ് ആ അങ്ങനത്തെ വീടാണ് ഉദ്ദേശിക്കുന്നത് മ്മ് മ്മ് ഓക്കേ ഓക്കേ